ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ എൻ്റെ പ്രദേശത്ത് വെറ്റിനറി ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മള് നോക്കുമ്പോൾ ഡോക്ടർമാർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് പെറ്റ്സിന് നല്ല രീതിലുള്ള ടാബ്ലറ്റ്സും കാര്യങ്ങളും മരുന്നുകളൊക്കെ തന്നെയാണ് പ്രിഫർ അപ്പോൾ ഞാൻ കൂടുതലായിട്ടും ഇപ്പോൾ ഈ അടുത്തുതന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ ഡോഗിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഡോഗിൻ്റെ എന്താ പറയുക വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത് അപ്പോൾ എന്താ പറയുക മൃഗങ്ങളിപ്പോൾ ആരോഗ്യത്തോടെയും അങ്ങനെയാകുമ്പോൾ ആരോഗ്യപരമായിട്ട് നോക്കുമ്പോൾ നമുക്ക് സ്പെൻഡ് ചെയ്യുന്ന മണീടെ കാര്യങ്ങളൊന്നും നമ്മള് നോക്കാറില്ല കാരണം നല്ല രീതിക്കുതന്നെ ക്യാഷ് മുടക്കിയിട്ടായാലും നമുക്ക് നമ്മുടെ പെറ്റ്സിനെ നല്ല രീതിക്കുതന്നെ വളർത്താൻ കഴിഞ്ഞാൽ അത്രയും നല്ലതെന്നുള്ള രീതിയിലാണ് നമ്മൾ കൂടുതലായിട്ടും ഇപ്പോൾ എന്താ പറയുക ഡോക്ടറുടെ അടുത്തൊക്കെ പോയി പ്രിഫർ ചെയ്യാം അപ്പോൾ ഡോക്ടേർസ് നല്ല രീതിക്കുള്ള മരുന്നുകളും കാര്യങ്ങളും നമ്മളുടെ ഡോഗ്സിനായിക്കോട്ടെ നമ്മളെ പെറ്റ്സിനും എല്ലാത്തിനും പ്രിഫർ ചെയുമ്പോൾ നമ്മളതാണ് ചൂസ് ചെയ്യാറുള്ളത് പിന്നെ കൂടുതലും എന്താ പറയുക ഡോക്ടേർസ് ഇപ്പോൾ വീട്ടിലൊക്കെ വന്ന് പരിശോധിക്കുന്ന ഫെസിലിറ്റീസുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ മൃഗങ്ങളെ പരിപാലിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഡോക്ടേർസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ല രീതിയിലുള്ളൊരു ഇതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് വെറ്റിനറി ഹോസ്പിറ്റലുകളുള്ള നമുക്ക് എന്തുകൊണ്ടും നല്ലൊരു കാര്യയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അവരങ്ങനെ വരുന്ന ഉള്ളതുകൊണ്ടാണ് നമുക്കിപ്പോൾ അത്യാവശ്യം പെറ്റ്സിനെയും കാര്യങ്ങളെയും ഒക്കെ നല്ല രീതിക്ക് തന്നെ വളർത്താൻ കഴിയുന്നതാണെന്ന് കഴിയുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം